ഞാൻ എച്ച് പി യുടെ ഒരു ലാപ്ടോപ്പ് ആണ് ഫസ്റ്റ് വാങ്ങിക്കുന്നത് അത് നല്ല സൗകര്യങ്ങളുള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ഗ്രാഫിക്സ് കാഡ് ആയാലും ഇൻറ്റേൺൽ മെമ്മറിയായാലും റാം ആയാലും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിങ് കാര്യങ്ങളും ആണ് ഞാൻ അതിനകത്ത് യൂസ് ചെയ്യുന്നത് വിൻഡോസ് ടെണ്ണ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ നല്ല അത് നല്ല

സിംപിൾ ആണ് നമ്മൾ ഉപയോഗിക്കാൻ എല്ലാം കൊണ്ടും അതിൽ നമക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ഹാങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഗെയിം ഒക്കെയായാലും നമുക്ക് നല്ല സ്പെയ്സ് എടുക്കുന്ന ഗെയിം ഒക്കെയായാലും നമുക്ക് നല്ലപോലെ കളിക്കാൻ പറ്റുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ഇതുവരെ കാണിക്കുന്നില്ല കീപ്പാട് ഒക്കെയായാലും നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല ഒരു ഇതാ വരുന്നത് കീബോഡ് ആയാലും മൗസ്സ് പൊയിൻറ്റ് ഒക്കെയായാലും നല്ലപോലെ നമുക്ക് കംഫർട്ടബ്ൾ ആണ് അതായത് ഗെയിം കളിക്കാനായാലും സ്പെയ്സ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല ഇൻറ്റേൺൽ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് റാമും റോം ഒക്കെയായാലും അത്യാവശ്യം നല്ലത് അത് തന്നെയാണ് നല്ല ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് അതിൽനിന്ന് ഉണ്ടായത് പിന്നെ എച്ച് പീ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് കമ്പനിയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള നല്ല നല്ല മികച്ച സോഫ്റ്റ്വേയറും അതിൻ്റെ തന്നെ റാമും കാര്യങ്ങളും എല്ലാം ഐ ഒ എസ് ഒക്കെത്തന്നെ അതിൻ്റെ നല്ല മികച്ച ഒരു ഇത് തന്നെയാണ് നമുക്ക് തരുന്നത് ഞാൻ എന്തായാലും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് അതിന് ഇതുവരെ ഒരു ഹാങോ ഒരു പ്രശ്നമോ ഒന്നും അതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല